ഞാനൊരു പുതിയ വാച്ച് എടുക്കാൻ വേണ്ടി ഓൺലൈൻ ആയി ഓർഡർ കൊടുക്കുകയും അത് അവർ അത് കൊണ്ടുവന്നപ്പോൾ വിലയിൽ ഉള്ള വ്യത്യാസം കാരണം ഞാൻ വേറൊരു കടയിൽ പോയി ഷോറൂമിൽ പോയി വാച്ച് കണ്ട് ചോദിക്കുകയും ചെയ്തപ്പോൾ അതേ വാച്ചിന് ഒരു ഇരുനൂറ് ഇരുനൂറ്റൻപത് രൂപയുടെ വിലക്കുറവ് കണ്ടപ്പോൾ ഞാൻ മറ്റേ ഓൺലൈൻ ആയുള്ളത് റദ്ദാക്കുകയും കടയിലെ വാച്ച് സ്വന്തമാക്കുകയും ചെയ്തു ആ സ്വന്തമാക്കിയത് കൂടി ഓ സ്വന്തമാക്കിയപ്പോൾ എനിക്ക് അവർ ഒരു ക്ലോക്ക് ഫ്രീ തന്നു അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോൾ അവരും പോയി അതേ വാച്ച് തന്നെ ആ കമ്പനി വാച്ച് എടുത്തു അവർക്കും അതുപോലെ ക്ലോക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ അവർക്കും അതിൻ്റെ കൃത്യത മനസ്സിലായി നല്ല വാച്ചുമാണ് അലാറം ഉണ്ട് ഡേറ്റ് ഉണ്ട് ദിവസമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അലാറം വെച്ചാൽ കൃത്യ സമയത്ത് എഴുന്നേൽക്കാനും പറ്റുന്നുണ്ട് നല്ലൊരു വാച്ച് ആണ് നമ്മുടെ കയ്യിൽ വന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാം പറഞ്ഞ് അവരും അവരുടെ സുഹൃത്തുക്കളും പറഞ്ഞു നല്ല എല്ലാവരും ഇപ്പം ആ വാച്ച് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി എപ്പോഴും ഞാനാ കടയിൽ പോയാൽ എന്തെല്ലാം എൻ്റെ പിള്ളേർക്ക് വേണമെങ്കിലും ഏത് എല്ലാ സാധനങ്ങളും അവിടുന്നേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നല്ല നല്ല ബിസിനസ് മെൻറ്റാലിറ്റിയിലാണ് അവിടുത്തെ ജോ ജോലിക്കാർ നമ്മളോട് ഇടപെടുന്നതും അപ്പോൾ നമുക്കൊരു പ്രത്യേകത അവരോട് തോന്നി അപ്പോൾ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ഒരാൾ കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ പടിക്കൽ കൊണ്ട് തരും എന്നുള്ളതല്ലാതെ വേറെ അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കൂടുതൽ ഐറ്റങ്ങൾ എവിടെയുണ്ട് ഏതെല്ലാം കമ്പനികളുടെ വാച്ചുകൾ വേണോ അതെല്ലാം അവിടെയുണ്ട് നമുക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം പക്ഷേ നമ്മൾ ഈ ഓർഡർ ഫോണിൽ കൂടെ പടം കണ്ട് ഓർഡർ ചെയ്ത് നമ്മൾ ആ ഒരു വാച്ച് മാത്രമാണ് അവർ കൊണ്ടുവരുന്നത് അതെനിക്ക് താല്പര്യപ്പെട്ടില്ല അത് കാരണം ഞാനത് വേണ്ട എന്ന് വെച്ചു അവരോട് പറഞ്ഞു സോറി പറഞ്ഞു ആ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇവിടം വരെ വന്ന് ക സംഭവം ഒരാളാണ് അതുകൊണ്ട് ഞ നഷ്ടം ഒന്നുമില്ല ഞങ്ങൾക്ക് ഏതായാലും ഇവിടെ അടുത്ത് വരെ വരേണ്ടതുണ്ട് പിന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരെ മടക്കി അയച്ചു ഞാൻ ആ കമ്പനി കടയിൽ പോയി നല്ല സാധനങ്ങൾ കളക്റ്റ് ചെയ്തു എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞു അവർ എല്ലാവരും അവർക്ക് താല്പര്യമായി ഞങ്ങളുടെ അടുത്തുനിന്നൊരു നാല് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ആ കട അപ്പം നമുക്ക് വേണ്ട അറിയാവുന്ന ഒന്ന് രണ്ട് സെയിൽസ്മാൻമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കാരണം അവരുടെ നിർബന്ധ പ്രകാരവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ആയതുകൊണ്ടാണ് ഞാനത് സ്വന്തമാക്കി എന്ന് വേണം പറയാൻ എൻ്റെ സുഹൃത്തുക്കളോടും കുടുംബത്തിൽ പെട്ടവരോടും എല്ലാം പറഞ്ഞു ആ സാധനം നല്ലതാണ് അവരോടും മേടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്